ഇപ്പം ഇന്ത്യയിലിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഫേമസായിട്ടുള്ള യോഗ അ ഗുരുക്കന്മാരായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് സ്വാമി ശിവാനന്ദ പിന്നെ ശ്രീശ്രീ രവി ശങ്കർ അങ്ങനെയൊക്കെയുള്ളവരാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇവരൊക്കെയാണ് എൻ്റെ അറിവില് യോഗ ഗുരുക്കന്മാരായിട്ട്നമ്മുടെ അറിവിലിപ്പോൾ ഉള്ളത് ഇത്തരത്തിൽ ഇവരൊക്കെ എന്താ പറയുക യോഗയൊക്കെ ജീവിച്ചു കൊണ്ട് തന്നെ ഒരുപാട് കാലം ജീവിച്ചവരൊക്കെയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇവർക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എന്താ പറയുക എന്താ പറയുക ശിഷ്യന്മാരും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു കാരണം അവര് അത്രയ്ക്ക് വിധക്തരായിരുന്നു ഈ യോഗ പോലുള്ള സംഭവങ്ങളില് അവര് അതുകൊണ്ടു തന്നെ എന്താ പറയുക നല്ല രീതിക്ക് തന്നെ ഗുരുക്കന്മാര് എന്താ പറയുക ഗുരുക്ക ഗുരുവായിട്ട് ഇരിക്കാൻ എന്തുകൊണ്ടും അനിവാര്യം ഉള്ളവര് എന്താ പറയുക യോഗ്യതയുള്ളവരായിട്ടാണ് ഇന്നും അദ്ദേഹത്തിനെയൊക്കെ എല്ലാവരും പറയുന്നത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കാരണം അയാളൊക്കെ എന്താ പറയുക അദ്ദേഹമൊക്കെ അത്രയ്ക്ക് നല്ല രീതിക്കായിരുന്നു യോഗയും കാര്യങ്ങളുവൊക്കെ അവരുടെ ശിഷ്യന്മാർക്ക് പഠിപ്പിക്കുകയും പകർന്നു കൊടുക്കുകയുമൊക്കെ ചെയ്തിരുന്നത് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്